ഗൂഡ് മോണിങ് സർ എൻ്റെ പേര് ഹബീബ് എന്ന് ആണ് ഞാനെ അഡ്മിഷന് വേണ്ടി വന്നതാണ് എൻജിനിയറിങ്ങിനാണ് പ്രിഫറ് ചെയുന്നത് എനിക്ക് പ്ലസ്ടൂവിന് നയൻ്റി അല്ല സാറേ എനിക്ക് നയൻ്റി തൊണ്ണൂറ്റി നാല് ശതമാനത്തോളം മാർക്ക് ഉണ്ട് മെറിറ്റില് കിട്ടില്ലേ ആ ആ രണ്ട് ലക്ഷം രൂപ ഫീ മാത്രം വൺ ഇയറ്

ബാ ബാലൻസ് വരുന്ന ഒരു ലക്ഷം നാല് ഇയർ കൊണ്ട് തീർത്താൽ മതി അതിന് ആ ഓ ഹൊ

ളേയ് ആ പിന്നെ ഓ അല്ലാതെ ഹോസ്റ്റൽ സൗകര്യങ്ങള് ഇതില് വരുവോ ഫീസൊക്കെ ഇതില് ഉൾപ്പെടുവോ ഈ ടു രണ്ട് ലക്ഷം കൂടാതെ വേറെ അതിന് ഫീസ് വരുവോ ആണ് അല്ലെ അതില് പിന്നേ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഭക്ഷണം പെടും അല്ലെ

ആ ഒക്കെ ഒക്കെ ഞാൻ നേരില് വരാം അഡ്മിഷന് വേണ്ടിയിട്ട്